സ്കൂളിൻറ്റേതായ ഒരു നോക്കിക്കഴിയുമ്പോഴേക്കും ആ കൊള്ളാം എന്ന രീതി മനസ്സിൽ വരുന്നു പക്ഷേ ഗ്രാമങ്ങളിലെ സ്കൂളെന്ന് പറഞ്ഞാല് സാധാരണ സ്കൂളുകളായിരിക്കും വലിയ വലിയ കെട്ടിടങ്ങള് ആ വരുന്നില്ല അങ്ങനെ ഉള്ള ഒരുപാട് പരിമിതികള് ഉണ്ട് പ്രത്യേകിച്ചും ഒരു മാനേജ്മെൻറ്റ് സ്കൂളാകുമ്പോള് അവരുടെ ഒരു പരിമിതിയിൽ നിന്ന് കൊണ്ടാണവരതെല്ലാം ചെയ്യുന്നത് അപ്പോള് പലപ്പോഴും നമുക്ക് ഇപ്പോള് സ്കൂളുകള് തന്നെ എയ്ഡഡും അൺ എയ്ഡഡും എയ്ഡഡ് സ്കൂളെന്നുവച്ചുകഴിഞ്ഞാല് അവരെ മാനേജ്മെൻറ്റിന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് കാരണം കുട്ടികളുടെ കയ്യില്നിന്ന് ഫീസ് മേടിക്കാതെ പഠിപ്പിക്കുന്ന സ്കൂളായതു കൊണ്ട് അവരുടെ ബിൽഡിങ്ങുകളും അതിനൊക്കെ എല്ലാത്തിനും ഒരു പരിമിതി വെച്ചിട്ടുണ്ട് പക്ഷേ അൺ എയ്ഡഡ് സ്കൂളെന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും അവരുടെ കുട്ടികളുടേന്ന് ഫീസും മേടിച്ച് പഠിപ്പിക്കുന്നതു കാരണം ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിനും അതിനെ ഒക്കെ അത് സ്വാധീനിക്കാറുണ്ട് അപ്പോള് കൂടുതല് ടൗണിലാണ് നഗരങ്ങളിലാണിങ്ങനത്തെ സ്കൂളുകള് നമ്മള് കാണുന്നത് ഗ്രാമങ്ങളില് കഴിവതും നമ്മുടെ ആ ഗവൺമെൻറ്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോള് സ്കൂളുകളുടെ അന്തരം അത് തന്നെയാണ് ഏറ്റവും കൂടുതല് നമ്മള് കുട്ടികളെയൊക്കെ പെട്ടെന്നാകർഷിക്കാന് സാധിക്കും ഈ നഗരങ്ങളിലെ സ്കൂളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കൂളുകളാണ് ഗ്രാമങ്ങളിലെ സ്കൂളുകളെന്നു പറയുമ്പോള് കുട്ടികൾക്ക് പെട്ടെന്ന് ആ അയ്യോ ഇതാണോ എൻ്റെ സ്കൂള് എന്ന രീതിയിലേക്ക് കുട്ടികള് പലപ്പോഴും മാറും പക്ഷേ എപ്പോഴും ഗ്രാമത്തിൽ പഠിക്കുന്ന കുട്ടികളും നഗരത്തിൽ പഠിക്കുന്ന കുട്ടികളും തമ്മില് വലിയ അന്തരം ഉണ്ടെന്നുള്ളതാണ് കാരണം ഗ്രാമത്തിലെ കുറേ നന്മകള് ആ നഗരത്തിലില്ലെന്നല്ല പക്ഷെ ഗ്രാമത്തിലെ കുട്ടികള് കുറേ നന്മകള് ആ ഒരു നമ്മടെ നാട്ടിൻപുറത്തെ കുറേ കുട്ടികളായിരിക്കും പലപ്പോഴും ഗ്രാമങ്ങളിലെ സ്കൂളില് പഠിക്കുന്നത് നഗരത്തിലെന്നു പറഞ്ഞു കഴിയുമ്പോള് പല സ്ഥലത്തനിന്നു വന്ന സ്കൂളുകളില്നിന്നു വന്ന കുട്ടികളാണ് പലപ്പോഴും അവിടെ പഠിക്കുന്നത് അപ്പോള് സ്കൂളുകള് തമ്മിലുള്ള അന്തരമെന്നു പറഞ്ഞുകഴിഞ്ഞാലിത് തന്നെയാണ് എപ്പോഴും ആ നഗരത്തിലെ സ്കൂളുകള് തല ഉയർത്തി നില്ക്കുന്നൊരു വലിയ കെട്ടിടവും ഗ്രാമത്തിലെ സാധാരണക്കാരിലൊരു സ്കൂളും ആയി എപ്പോഴും കാണാറുണ്ട് പിന്നെ വ്യത്യസ്തപരമായ കാര്യങ്ങളെന്നുപറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ തന്നെയാണ് വ്യത്യസ്തമായ കാര്യങ്ങള് ഗ്രാമത്തിലും നഗരത്തിലെ എല്ലാ വ്യത്യാസമെന്നു പറഞ്ഞുകഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ സ്കൂളുകളില് തന്നെ ആണേലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലാബും പിന്നെ മൾട്ടി മീഡിയയുടെ ഉപയോഗവും ആ ഇപ്പോള് എല്ലാ സ്കൂളുകളിലുണ്ടെങ്കില്പ്പോലും നഗരങ്ങളിലെ സ്കൂളുകളിൽ ഇതൊക്കെ പെട്ടെന്നെത്തി പ്പെടുന്നുണ്ട് ഗ്രാമങ്ങളിലേക്കിതൊക്കെ കുറവാണ് എന്നാല്പ്പോലും കുട്ടികള് എല്ലാ രീതിയിലും നന്മയുള്ള കുട്ടികളായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്